ഡിഗ്രി എന്നത് പറഞ്ഞാല് നല്ലൊരു ക്വാളിഫിക്കേഷൻ ആണ് ഡിഗ്രി എല്ലാം എടുത്ത് ഉള്ളവർക്കൊക്കെ നല്ല വാല്യൂ ഉണ്ട് നമ്മൾ ജോബിലൊക്കെ ജോബ് ഓപ്പർച്യുണിറ്റിയിലേക്ക് നമ്മൾ പോയി നിൽക്കുവാണെങ്കിൽ അവര് ചോദിക്കും ഡിഗ്രി പ്ലസ്ടു അങ്ങിനത്തെ സംഭവങ്ങൾ ഉണ്ടോ ആണ് ഡിഗ്രി ഉണ്ടേൽ കുറച്ച് നമുക്ക് മുൻഗണന കൂടുതലാണ് നമുക്ക് അപ്പം എല്ലാവരും ഡിഗ്രി പഠിക്കാനാണ് ഇപ്പം പ്ലസ്ടു കഴിഞ്ഞവരെല്ലാരും ഡിഗ്രിയ്ക്കാണ് പോവാറുള്ളത് ഇവിടേ അടുത്ത് ഡിഗ്രി പഠിച്ച് കഴിഞ്ഞവരൊക്കെ ഉണ്ട് അവര് സ്വയം നല്ലൊരു രീതിക്ക് എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് എന്താച്ചാല് ഡിഗ്രി ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു വാല്യൂ ഉണ്ടാവും നമുക്ക് എല്ലാം എല്ലാ ജോബൊക്കെ ഒന്ന് നമുക്ക് കിട്ടണെങ്കിൽ ജോബിലൊക്കെ പോയി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂവിൽ അവര് ചോദിക്കാ ഡിഗ്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മടെ ഒരു മുൻഗണന ആണ് അത് അപ്പം ഡിഗ്രി നല്ലൊരു കോഴ്സ് ആണ് ഒരു നല്ലൊരു വാല്യൂ ഉള്ളൊരു സംഭവമാണ് അതുകൊണ്ട് ഇവിടെ അടുത്തുള്ളവരൊക്കെ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞവരാണ് അവര് സ്വയം മുന്നേറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ആ അത്രയൊക്കെ തന്നെയാണ് ഡിഗ്രി ഡിഗ്രി അടിപൊളിയാണ് ആണ്